ഹലോ ആ ആ ചേട്ടാ ഞാന് ഒരു അഞ്ച് മിനുട്ട് മുന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓര്ഡറ് തരാന് വേണ്ടിയിട്ട് അതെ ആ ആ ചേട്ടാ ഞാന് പിസ്സ ഓര്ഡറ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അതിന് ഏതാ ടോപ്പിംഗ് ഞാന് ചിക്കന് ടോപ്പിംഗായിരുന്നു ആദ്യം ഓര്ഡറ് ചെയ്തത് ചേട്ടാ എനിക്കൊര് സാൽസയും കൂടെ വേണമായിരുന്നു ടോപ്പിംഗായിട്ട് ആ അത് കൊറിയാണ്ടര് സല്സ മതി ആ അതേ ഗസ്റ്റ് വന്നിട്ടുണ്ടാരുന്നു അപ്പം അവരോട് ചോദിച്ചപ്പം അവരത് മാറ്റാനാണ് പറഞ്ഞത് പഷേ രണ്ടും കൂടി എടുക്കണമായിരുന്നു ആ ചിക്കനുമെടുത്തോ സല്സ എടുത്തോ ആ അതെ ആ സോസ് ഏതാണ് ഏട്ടാ വരുന്നത് ആ നേരത്തെ ടൊമാറ്റോ സോസാണ് ഓര്ഡറ് ചെയ്തത് ചേട്ടാ ഒരു ചില്ലി സോസും കൂടി വെക്കണമായിരുന്നു എക്സ്ട്ര രണ്ട് മൂന്നെണ്ണം വെച്ചോ മൂന്ന് സാഷ വെച്ചോളു ആ ആ ടോപ്പിംഗ് സല്സ ടോപ്പിംഗ് മാത്രം മതി അതെ എക്സ്ട്രാ എടുക്കുന്നത് ഒന്ന് ആദ്യത്തെ ആദ്യത്തത് ചിക്കന് വെച്ചിട്ടുള്ളതും പിന്നെ ഈ സൽസയും കൂടി ഉള്ളതും ഇല്ല ഇല്ല സല്സ മാത്രമായിട്ടു മതി എക്സ്ട്രാ വരുന്നത് ആ സോസ് ചില്ലി സോസും മൂന്ന് പാക്കറ്റ് ടൊമാറ്റോ സോസും മൂന്ന് പാക്കറ്റ് അതെ എക്സ്ട്രാ ആ നേരത്തെ ഓര്ഡര് ചെയ്തപ്പോൾ തന്നില്ലായിരുന്നു ഏട്ടാ അത് ബൈ മിസ്റ്റെയ്ക്കില് പറ്റിപ്പോയതാണ് ആ അവരോട് ഞാന് ചോദിച്ചില്ലായിരുന്നു ചോദിച്ചപ്പം അതില് ചിക്കന് കഴിക്കാത്ത ആള്ക്കാരുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചിക്കന് ടോപ്പിംഗ് ഇല്ലാത്തത് ഒരെണ്ണം ഓര്ഡറ് ചെയ്തത് അതെ ചേട്ടാ ഒര് അര മണിക്കൂറിനുള്ളില് എത്തിക്കാന് പറ്റുമോ ഇല്ല ഏട്ടാ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരമേ അവര് ഉണ്ടാവത്തുള്ളു അതിന് മുന്നെ കിട്ടുകയാണെങ്കില് വലിയ ഉപകാരമായിരുന്നു അതെ അതെ അതെ ആ എക്സ്ട്ര പേയ്മെൻ്റ് ചെയ്യാം കുഴപ്പമില്ല അത് ഓണ്ലൈനായിട്ട് വേണമെങ്കില് ഓൺലൈൻട്ട് ഓണ്ലൈനായിട്ട് ചെയ്യാം ആ നേരത്തെ വന്നപ്പം ക്യാഷ് ഓണ് ഡെലിവറി ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓണ്ലൈനായിട്ട് ചെയ്യുകയാണെങ്കില് ഇപ്പോൾ വേണമെങ്കില് ചെയ്യാം എക്സ്ട്ര പറഞ്ഞതുകൊണ്ട് ഓക്കെ ചേട്ടാ ഒരു ടോപ്പിംഗ് ഉള്ളത് രണ്ടെണ്ണം അത് സൽസയും ചിക്കനും പിന്നെ സോസ് മൂന്ന് പാക്കറ്റ് വെച്ച് ചില്ലി സോസും ടൊമാറ്റോ സോസും ചേട്ടാ ഈ ഗാര്ലിക് ചട്ണി അങ്ങനത്തതന്നെ ഉണ്ടാകുമോ ആ അത് ഒരെണ്ണം വെച്ചോളു ഓക്കെ അത് അല്ല വേണ്ട ഗാര്ലിക് മാത്രം മതി ഓക്കെ ആ ആ ഞാന് അഡ്രസ്സ് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു ആ അഡ്രസ്സില് തന്നാൽമതി ഓക്കെ ഈ നമ്പറില് വിളിച്ചാൽ മതി ഇത് അവൈലബിളാണ് ഓക്കെ ഓക്കെ ശരി കേട്ടോ ഒര് അര മണിക്കൂറിനുള്ളില് എത്രയും പെട്ടെന്ന് ഒന്ന് എത്തിക്കാന് നോക്കണെ ഡിലെ ആവരുതെ ഓ ശരി ഓക്കെ ഓക്കെ താങ്ക് യു